ഞാൻ എഴുതാനാഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ സന്ദേഹം പുലർത്തുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഭിന്നലിംഗക്കാരെന്ന് പറയുന്നത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അതിനെ ഉൾക്കൊള്ളുന്ന ഒരു സബ്ജെക്റ്റ് തന്നെയാണ് ഒരു വിഷയം തന്നെയാണ് ഭിന്നലിംഗം എന്ന് പറയുന്നത് കാരണം ഭിന്നലിംഗക്കാർ അവർ സ്വയം അങ്ങനെ ആയി തീരുന്നതല്ല അവരങ്ങനെ ആവാൻ കാരണം അവരുടെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളും അതിലൂടെയാണവർ ആയി മാറുന്നത് ഭിന്നലിംഗമായി മാറുന്നത് ഒരിക്കലും അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇന്നത്തെ സമൂഹമായാലും പണ്ട് തൊട്ടേ സമൂഹത്തിൽ അവരെ കുറ്റം പറയുകയാണ് അവർ അങ്ങനായത് അവരുടെ എന്തോ തെറ്റായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ അത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ അംഗീകരിക്കപ്പെടാത്തവരാണ് ഭിന്നലിംഗം എന്ന് പറയുന്നത് അവരെ ഇപ്പം പൊതുവെ പൊതുസ്ഥലങ്ങളിൽ അവരെ കാണുകയാണെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നവരുണ്ട് അവരെ അകറ്റി ഓടിക്കുന്നവരുണ്ട് അത് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും അവരെ നേരിട്ട് കാണാൻ പറ്റാത്തവരുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ച് പറയുന്നവരുണ്ട് അവരെ കാണുമ്പം എന്നിരുന്നാലും അവരുടെ മാനസികാവസ്ഥ ഭിന്നലിംഗക്കാരുടെ മാനസികാവസ്ഥ അറിയനോ അല്ലെങ്കിൽ അവർ അങ്ങനെ ആവാനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കാനോ മനുഷ്യൻ മനുഷ്യർ നോക്കണില്ല കൂടുതലും അവരെ നെഗറ്റീവായിട്ട് പറയുകയാണ് ചെയ്യുന്നത് അവരുടെ അവരെ അംഗീകരിക്കാൻ ഒട്ടും തന്നെ സാധിക്കാത്തൊരു എന്താ പറയാ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്